ഹലോ ആ ലൈബ്രേറിയൻ അല്ലേ അതെ ആന്നല്ലേ മാഡം എനിക്ക് ഒരു പുസ്തകം ഞാൻ ലൂർദ് മാതാ സ്കൂള് പഠിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ എനിക്ക് നമ്മുടെ സ്കൂൾ ലൈബ്രറീൽ പുസ്തകങ്ങൾ അല്ലല്ലോ ഒരു ഒരു പുസ്തകം ദേ ചെമ്മീൻ്റെ പുസ്തകം തകഴി എഴുതിയ ചെമ്മീൻ ഉണ്ടല്ലോ അപ്പോൾ ചെമ്മീൻ്റെ പുസ്തകം ആ എനിക്ക് അവിടെ അവൈലബിൾ ആണല്ലോ മാഡം അതെ ആന്നാന്നല്ലേ ആ ഇല്ല എനിക്ക് അക്കൗണ്ട് സ്വന്തം ആ ആ നമ്മൾ അക്കൗണ്ട് നമുക്ക് ഇല്ലല്ലോ ആ അപ്പം അതിന് ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഐ ഡി പ്രൂഫ് വേണം ആ ആ ഒരു ഫോട്ടോ ആ ഇതെല്ലാം കൂടെ വെച്ച് നമ്മൾ രെജിസ്ട്റ് ചെയ്ത് കൊടുക്കണം അല്ലേ ആ ആ ആ മാഡം വേറെ ഏതൊക്കെ പുസ്തകം ഉണ്ട് അവിടെ നമ്മുടെ നമ്മുടെ സത്യാന്വേഷണ പരീക്ഷണ കഥകളൊക്കെയുണ്ടോ മാഡം എല്ലാം ഉണ്ടോ അപ്പം മാഡത്തെ എപ്പഴാ അവൈലബിൾ ആവുന്നത് മാഡത്തിനെ എപ്പം കിട്ടും

ആ നൈൻ തെർട്ടി ടു വണ്ണ് ഓ ക്ലോക്ക് അല്ലേ ആ ആ അപ്പം ഞങ്ങളുടെ ക്ലാസ് ടൈമും കൂടെയാ മാഡം ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ സമയം കൂടെ ആണല്ലോ അപ്പം ആ ആ അപ്പം ഞങ്ങൾക്ക് നൈൻ തേർട്ടി ടു വണ്ണ് ഓ ക്ലോക്ക് എന്ന് പറയുമ്പഴത്തേക്കും ഞങ്ങൾ വൈകീട്ട് ഉണ്ടോ ഈവനിംഗ് ഉണ്ടോ ആ ത്രീ തേർട്ടിക്ക് ആഫ്റ്റർ ത്രീ തേർട്ടി നമുക്ക് ഉണ്ടല്ലേ ആ ത്രീ തേർട്ടി അപ്പം അതിൻ്റെ ഒരു പുസ്തകം വേണമായിരുന്നല്ലോ അപ്പം വേറെ വേറെ നമ്മുടെ സത്യാന്വേഷണ പരീക്ഷണ കഥകളൊക്കെ ഉണ്ട് അല്ലേ ആ മലയാളത്തിൻ്റെ പുസ്തകമൊക്കെ ഉണ്ടല്ലേ ആ അപ്പം നമുക്ക് ആ മാഡം അത് ഒരു പുസ്തകം എനിക്ക് എന്തായാലും എനിക്ക് അത്യാവശ്യമായിട്ട് തന്നെ വേണം ഏ പിന്നെ ആ ഒരു ദിവസം ഈ ഈ കുട്ടികൾക്കൊക്കെ എങ്ങനെയാ കൊടുക്കുന്നത് പുസ്തകം നമ്മുടെ ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് മേടിക്കാം അല്ലേ നമ്മൾ സമ്മറി വല്ലതും സമ്മറി വല്ലതും കൊടുക്കുമോ എഴുതുന്നുണ്ടോ സമ്മറി എഴുതിപ്പിക്കുമോ മാഡം സമ്മറി എഴുതിപ്പിക്കുന്നുണ്ട് അല്ലേ ആ അപ്പം ഒരാഴ്ച ആഫ്റ്റർ വൺ വീക്ക് ഫൈൻ വേടിക്കുന്നുണ്ടോ ഫൈൻ ഉണ്ടല്ലേ പുസ്തകത്തിന് നമ്മൾ ഫൈൻ വേടിക്കുന്നുണ്ടല്ലേ ആ അപ്പം ആ എനിക്ക് ഇത് വായിക്കാൻ ഞാൻ പഠിക്കുന്നത്കൊണ്ട് എനിക്ക് എത്ര സമയം കിട്ടും എന്ന് അറിയത്തില്ല എന്തായാലും ഞാൻ കുറച്ച് നേരം എനിക്ക് കുറച്ച് സമയം വേണം കുറച്ച് ആ കുറച്ച് കുറച്ച് ദിവസം എൻ്റെ കയ്യിൽ ഇരിക്കണം എന്നാലേ എനിക്കത് ആ എനിക്ക് എഴുതാൻ പറ്റത്തുള്ളൂ ആ ഇംഗ്ലീഷ് ഹിന്ദി ആ ആ മറ്റ് ഈ അവൈലബിൾ ആണ് നമുക്ക് ഈ സ്റ്റോറി ബുക്ക്സും നമുക്ക് ഈ പണ്ട് ഈ റിലീജിയസ് ആയിട്ടുള്ള പുസ്തകങ്ങളുണ്ടോ അവിടെ റിലീജിയസ് പുസ്തകങ്ങൾ ഉണ്ടല്ലേ ഉണ്ട് ഉണ്ട് ആ അപ്പം നമുക്ക് അതിൻ്റെ ഒന്ന് ആവശ്യം ഉണ്ട് മാഡം സ്കൂൾലെ ആവശ്യത്തിന് നമക്കൊന്ന് വായിക്കാനും നമുക്കൊന്ന് മറ്റേ കാര്യങ്ങളിലോട്ട് പോകാനൊക്കെയായിട്ട് നമുക്ക് അതുംകൂടെ അത്യാവശ്യമാണ് സ്കൂൾലെ നമ്മുടെ പുസ്തകങ്ങളെ മ്മ് നമുക്കത് നമ്മുടെ നമുക്കുകൂടെ അത്യാവശ്യമായിട്ട് ആ ഈ പുസ്തകങ്ങൾ ഏതെങ്കിലും കൂടെ വേണം കേട്ടോ മാഡം ആ ഓക്കെ ഓക്കെ ഓക്കെ അപ്പം ഞാൻ നാളെ ഞാൻ നാളെ വൈകീട്ട് വരാം നാളെ വൈകീട്ട് വന്ന് ഞാൻ തന്നെ എടുത്തോളാം ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ താങ്ക് യൂ ഓക്കെ ആ